ഹലോ ഒരു വണ്ടി വേണമായിരുന്നല്ലോ എനിക്ക് ഹോസ്പിറ്റൽ വരെ ഒന്നു പോകാനായിരുന്നെ അത്യാവശ്യമായിട്ടും വേണം അത് ആരെങ്കിലുമുണ്ടോ വണ്ടിക്കാരവിടെ ഉണ്ടെങ്കിൽ ഒന്നു വിളിച്ചു പറഞ്ഞു വിടുമോ അ ഇന്ന ആളുടെ വീട്ടിലാണെന്നു പറഞ്ഞേച്ചാൽ മതി അ മനസ്സിലായല്ലോ ആ ഞാൻ ബിന്ദൂൻ്റെ വീട്ടിലേക്കാണെന്നു പറഞ്ഞേച്ചാൽ മതി അ ഞാൻ ആ ഓട്ടോക്കാരെ ഒന്നു വിളിച്ചിട്ട് എടുക്കുന്നില്ലായിരുന്നേ അതുകൊണ്ട് ആരുടെയെങ്കിലും എനിക്ക് ഒന്നു രണ്ടു പേരുടെ നമ്പർ അറിയത്തുള്ളായിരുന്നു അപ്പം ആരുടെയെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ ഒന്നു വിളിച്ചു വിടാൻ സഹായിക്കണേ